ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥി കുട്ടികൾ ആണെങ്കിൽ കുട്ടികൾക്ക് ബാത്റൂമിൽ പോകാനോ ബാത്റൂമുകൾ ബാത്റൂമിൻ്റെ സംവിധാനം ഒന്നും ഇല്ലായിരുന്നു എല്ലാവരും അടുത്തുള്ള പറമ്പിലോ പറമ്പിലും തൊടിയിലൊക്കെ പോയിട്ടായിരുന്നു പിന്നെ മോ ബാത്റൂമിൽ ഒക്കെ പോയിരുന്നത് എന്നാൽ ഈ കാലം ഇപ്പോഴാണെങ്കിൽ ടോയ്ലറ്റുകൾ തന്നെ രണ്ട് മൂന്ന് തരത്തിലുള്ള ടോയ്ലറ്റുകളാണ് ഇപ്പം ഉള്ളത് യൂറോപ്യൻ വേണമെങ്കിൽ യൂറോപ്യൻ ഉണ്ട് സാധാ ടോയ്ലറ്റുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് തരം ടോയ്ലെറ്റുകൾ ഒക്കെ ഉണ്ട് റോഡിൻ്റെ സൗകര്യം വരെ ഇല്ലാത്ത കാലമായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത് ഇപ്പോഴാണെങ്കിൽ റോഡ് എന്ന് പറ റോഡ് ഇപ്പോൾ റോട്ടിൽ കൂടി തന്നെ വീടിന് മുൻപിൽ വരെ റോഡാണ് വീട്ടിന് മുൻപിൽ വരെ വണ്ടികൾ എത്തുന്ന സംവിധാനം വരെ ഇപോഴുണ്ട് എന്നാൽ ആദ്യ കാലത്ത് അതൊന്നും ഇല്ലായിരുന്നു ചെറിയ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി ഒരു ഇടവഴി വെച്ചിട്ട് ആ ഇടവഴി കൂടി നടന്നിട്ട് വേണം എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് വരെ ജോലിക്ക് പോകണമെങ്കിലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാം ഇതൊക്കെ ആ ഒരു വഴിയായിരുന്നു വേ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോഴാണെങ്കിൽ റോഡ് സൗകര്യവും ബാത്റൂമിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇപ്പം മെച്ചപ്പെട്ടോണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ സഥാപനങ്ങളിൽ